ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിലെ സർക്കാർ ഭരണത്തിൽ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയത് രാഷ്ട്രീയ പാർഷ്യവൽക്കരണമായിരുന്നു അതങ്ങനെ തോന്നാറെന്നും ഇല്ല അങ്ങനെ ഇത് ചെറിയൊരു ഗ്രാമപ്രദേശമായത് കൊണ്ട് തന്നെ ഒരു വേർതിരിവായിട്ട് അങ്ങനെ തോന്നാറൊന്നുമില്ല സി പി എം കോൺഗ്രസ്സ് ബി ജെ പി അങ്ങനെയൊരു ഗ്രാമമായതോണ്ട് തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഗ്രാമത്തിൽ തന്നെ എന്ത് കാര്യങ്ങൾ നടന്നാലും അവരെല്ലാം ഒത്തൊരുമിച്ച് നടക്കുന്നൊരു ഇതാണ് ഞാൻ കണ്ട് വരുന്നത് ഇവിടേത് കാര്യത്തിനാണേലും എന്തിനാണേലും എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടക്കാറുള്ള മോശമായൊരു പൊതുസേവനങ്ങൾ എല്ലാവരും മനുഷ്യരും തുല്യരും ആയതോണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായതോണ്ട് അങ്ങനെ മോശമായ പൊതുസേവനം സേവനങ്ങളായിട്ടൊന്നുമല്ല എല്ലാ സേവനങ്ങളും ചെയ്യാനായിട്ട് എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് പരിസ്ഥിതി തകർച്ച അങ്ങനെ പരിസ്ഥിതി തകർച്ച അങ്ങനുള്ളയിതായിട്ടൊന്നും ഇല്ല ഇപ്പം എല്ലാത്തിനും എല്ലാവരും എടേം പങ്ക് ഉണ്ടിപ്പം വേർതിരിച്ചിപ്പം ഞങ്ങളൊരു വേറൊരു പാർട്ടിക്കാരാണ് അത്കൊണ്ട് ഞങ്ങളാ ആ പാർട്ടിക്കാരുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഇടപെടത്തില്ല അങ്ങനൊരു പറച്ചിലിവിടില്ലേ എല്ലാത്തിലും എല്ലാവരും തുല്യരാണ് ആരുവാരും അവരെ വേർതിരിച്ച് കാണുന്നില്ല എല്ലാ കാര്യങ്ങളുമതെ കുറ്റകൃത്യങ്ങൾ സാമൂഹ്യശ അങ്ങനുള്ള കാര്യങ്ങൾ കുറ്റകൃത്യങ്ങൾ അതിലേയിപ്പം ഇന്ന പാർട്ടിക്കാരുടെ കുറ്റം ചെയ്തോണ്ട് ഞങ്ങളാ പാർട്ടിക്കാർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കത്തില്ല ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനുള്ളതൊന്നും ഇല്ല കുറ്റത്തിന് മുന്നിലും നിയമത്തിന് മുന്നിലും എല്ലാവരും തുല്യരാണ് എന്താവശ്യത്തിന് ആണേലും എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഗ്രാമപ്രദേശങ്ങളിലാണേൽ കൂടുതൽ ഐക്യമുള്ള സ്ഥലമാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത്കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പതിവാണിവിടെ കണ്ട് വരുന്നത് ആരുമങ്ങനെ വേറിട്ട് നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല വേറെ വേറെ പാർട്ട്യായിട്ട് മാറി മാറി നിൽക്കുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല